ആ വരൂ വരൂ ആ ആ ആ വന് ആ വിളിചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നില്ല ഓ ഓ ആ ഞാൻ നിങ്ങൾ ഇന്നലെ വരുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആ മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടേണ്ടി വരൂലെ അപ്പോൾ വരും അല്ലെ ആ ഏയ് അതൊന്നും കുഴപ്പം ഇല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നവിടെ വെച്ചാൽ മതി ആ ഓക്കേ എന്നാൽ എന്നാൽ നിങ്ങൾ അവിടെ തന്നെ വെച്ചോളൂ എങ്ങനെ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക എങ്ങനെ വേണേലും ചെയ്യാലോ ഗൂഗിൾ പേ ഇല്ല ഇല്ല ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആണോ ആ ആ അവിടെ ഇൻസ്റ്റാൾ ചെയ്തോളൂ പിന്നെ സർവീസ് ഒക്കെയോ നിങ്ങൾ ഇത് കംപ്ലയിൻറ്റ് വൈസ് വരുമ്പോൾ നിങ്ങളെ വന്ന് വിളിച്ചാൽ നിങ്ങൾ വന്ന് ശരിയാക്കി തരുമോ വിളിച്ചാൽ മതി അല്ലെ ഉണ്ടാകും അല്ലെ ആ ഓ ആ നിങ്ങൾ വന്ന് ചെയ്ത് തരും അല്ലെ ആ ഓക്കേ ഓക്കേ പിന്നെ ഇതിൻ്റെ പ്ലാൻസൊക്കെ എങ്ങനെ നമ്മൾ റീചാർജ് ചെയ്യുന്നതൊക്കെയോ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുവല്ലേ അതിന് പൈസ കൊടുക്കണ്ട

ആ അതായത് നമ്മൾ റീചാർജ് ചെയ്യണം സാധാരണ കമ്പനി ആ

റീചാർജ് ആ ആ നിങ്ങളിപ്പോൾ നമ്മൾ ഇല്ലേ ഈ മൂവായിരം രൂപ കൊടുക്കണത് ഇതിൻ്റെ നമ്മളെ മൊത്തത്തിൽ ആയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത് അല്ല ഇപ്പോൾ നമ്മൾ മൂവായിരം രൂപയാണെല്ലോ ഇതിലേക്ക് മൊത്തത്തിൽ പറഞ്ഞത് ഈ മൊത്തത്തിൻ്റെ എമൗണ്ട് അല്ലേ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റും ഈ ബോക്സും ഈ കാര്യങ്ങൾ ഒക്കെ ഇതിൽ വരുന്നത് അല്ലേ ആ ഓക്കേ ഓക്കേ ആ എന്നാൽ ഞാൻ അങ്ങനെ ആ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോളൂ ഞാൻ പേയ്മെന്റ് അയച്ചോളാം കമ്പനിക്ക് ആ ഓക്കേ ശരി ആ